എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളെന്നും എൻ്റെ ജീവിതത്തിലെ പരിചയത്തിലെ എൻ്റെ അറിവിലെ രൂപങ്ങളായിരിക്കും അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരിക്കും അവരെ ഞാൻ സാഹിത്യ രൂപത്തില എൻ്റേതായ സങ്കല്പങ്ങളിലൂടെ ഒന്ന് പൊടിപ്പും തൊങ്ങലും നൽകി ഒന്ന് ഉഷാറാക്കും അല്ലെങ്കിൽ ഒന്നുകിൽ ആ ക്യാരക്ടറിനെ ഒന്ന് പെരുപ്പിച്ചെടുക്കും അപ്പോഴാണ് എൻ്റെ ഒരു ഒരു ഒപ്പീനിയനിൽ അങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്നും കൂടി ഒരു നമുക്ക് ആ കഥാപാത്രത്തിൽ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും അതിൽ നമുക്കൊരു യാഥാർത്ഥ്യത ആയി നമുക്ക് തോന്നും അല്ലാതെ നമ്മൾ പടച്ചുണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഇമേജിനേഷൻ നിന്ന് എടുത്തുണ്ടാക്കുന്ന കഥാപാത്രങ്ങളാകുമ്പോൾ ചിലപ്പം അതിനൊരു റിയാലിറ്റി കുറവുണ്ടായേക്കാം അതൊരു കേൾക്കുമ്പോൾ തന്നെയൊരു ഫിക്ഷന ആണെന്ന് നമുക്ക് തോന്നിയക്കാം പക്ഷെ വായനക്കാരൻ്റെ വായിച്ചു നോക്കുമ്പോൾ അത് യഥർത്തിൽ നടന്നതാണോ എന്നുള്ള ഒരു തോന്നൽ വരണം എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ അയാൾ അവരുടെ പല കൃതികളും അങ്ങനെയാണ് നമുക്ക് വായിച്ചൽ യഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പോകും അത്രയും ഡീറ്റെലിങ്ങും അവർ യാത്ര പോയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അറിവുകളും ആ സാഹചര്യങ്ങളുമെല്ലാം കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന കഥകളായിരിക്കും അതുകൊണ്ട് തന്നെ അതിനൊരു യാഥാർത്യത നമുക്ക് ഫീല് ചെയ്യാൻ കഴിയും എപ്പോഴും ഡീറ്റെലിങ് കൂടുതലായിരിക്കും അതുപോലെ കഥയോട് യോജിച്ചതുമായിരിക്കും അതുകൊണ്ട് തന്നെ വായനക്കാരന് അതിലൊരു ത്രില്ലും ഉണ്ടാാവും അതുപോലെ ഒരു മോർ ദാൻ ഫിക്ഷൻ അതും നമുക്കൊരു ഒരു നമ്മൾ അതിൽ ജീവിക്കുകയാണ് കഥയിൽ നമ്മളും ജീവിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സമൂഹത്തിലെ മനുഷ്യരെ കുറിച്ചു തന്നെയാണ് ആ ഒരു സംഭവങ്ങളെയും വിവരിച്ചു എഴുതുകയാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത് പിന്നെ അത് വിശ്വസനീയവും രസകരവുമാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മളെ അടുത്തറിഞ്ഞ സംഭവങ്ങൾ കൂട്ടി കുഴച്ചു എഴുതുന്നതായിരിക്കും ഒന്നും കൂടി അതിന് കൂടുതൽ മനോഹരിത നിൽകുന്നതും മനോഹരമാക്കുന്നതും പക്ഷെ അങ്ങനെ എല്ലാത്തിലും ഞാൻ എഴുതാറുണ്ട് ചില സമയങ്ങളിൽ ഞാനുണ്ടാക്കിയ എൻ്റെ ഇമേജിനേഷനിലെ കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് എനിക്ക് പക്ഷേ ആ കഥാപാത്രങ്ങളൊന്നും എനിക്ക് കിട്ടാതെ പോയ എൻ്റെ അടുത്തുള്ളവരും എൻ്റെ റിലേറ്റീവ്സ മീൻ അങ്ങനത്തൊരു നമുക്ക് ആഗ്രഹിച്ചു പോകുന്ന കഥപാത്രങ്ങളാവും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങന ഉണ്ടായി എനിക്ക് കിട്ടാത്തതിനെ ഞാൻ എഴുത്തുകളിലൂടെ പടച്ചുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ ഇമേജിനേഷന് പുറമേ ആ റിയാലിറ്റി എനിക്ക് എന്തോ എൻ്റെയും റിയാലിറ്റി ആക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യാറ് പിന്നെ അതിലൂടെ കൊണ്ടുവരുന്നത് നമുക്കൊരു ടിഡി രാമകൃഷ്ണൻ ചെയ്തതു പോലെ നമുക്കൊരു എഴുത്തിൻ്റെ ഭംഗിയും കൂട്ടാൻ കഴിയും അതുപോലെ അതിൻ്റെ യാഥാർത്ഥതയിലേക്കും അതിനെ ബാധിക്കും